ഭാവിയിൽ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ നമുക്ക് ടൗണിൽ മലയാളം യൂസ് ചെയ്യാൻ നമുക്ക് പ്രേരിപ്പിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ പല സ്കൂളുകളിലും മലയാളം പഠിപ്പിക്കുന്നത് പോലുമില്ല അത് നമുക്ക് വേണമെങ്കിൽ ചെറുക്കാം ഒരു അങ്ങനെ മലയാളം പ്രമോട്ട് ചെയ്യാൻ പറ്റിയൊരു ഉദാഹരണമാണ് ഇത് ഈ സ്കൂളുകളിൽ പിന്നെ കുറെ മലയാളത്തിലുള്ള സിനിമകളെയും വെബ് സീരീസുകളെയും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടി ഇതിന് മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും